ആ അതേ എനിക്കൊരു ഒരു വീട് വേണം അത് നോക്കാനായിട്ടാണ് എൻ്റെ പേര് ഷാജി എന്നു പറയും ഷാജി വർഗീസ് പാറത്തോട് ആ അപ്പോള് നമുക്കൊരു നാലു ബെഡ്രൂം വേണം പിന്നെ ഒരു ഹോള് വേണം പിന്നെ വർക്കേരിയ അങ്ങനെ അതുപോലെതന്നെ എല്ലാ മുറിയും അറ്റാച്ച്ഡായിരിക്കണം പിന്നെ വീടിൻ്റെ ചുറ്റും നല്ല മുറഅറമുണ്ടാവണം പിന്നെ നമുക്കു വെള്ളം വറ്റാത്ത വെള്ളം കിട്ടണം അങ്ങനൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം

അതൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല വെള്ളം വറ്റാത്ത വെള്ളം നമുക്കു കിട്ടണം അല്ല അല്ല അതു ശരിയാവില്ല അത് ശരിയാവില്ല നമ്മള് നമ്മുടെ കിണര് നമ്മുടെ ഭാഗത്തുനിന്നുള്ള വെള്ളം അത് ഓരിയായാലും കുഴപ്പമൊന്നുമില്ല അല്ലേ കിണര് കിട്ടൂമെങ്കില് അതും നല്ലത് വറ്റാത്ത വെള്ളം കിട്ടണം പൈസ പൈസ എത്രായാലും വിഷയമൊന്നുമില്ല നമ്മെടെ കണ്ടിഷൻ അങ്ങനെയൊക്കെയാണ്

ആ ആ എന്നാലും വിഷയമൊന്നുമില്ല

ഇതാണ് നമ്മളുദ്ദേശിക്കുന്നത്

ആ അതു സാധാരണ ഉള്ളതാണല്ലോ ആ ആ നമുക്ക് നമ്മള്ക്ക് ഒരു അന്പതു രൂപയുടെ ഒരന്പതു രൂപയുടെ വീട് ഒതുങ്ങണം ആ എന്നുവച്ചാൽ നമുക്കൊരു അരക്കിലോമീറ്റർ ചുറ്റളവില്

അതിനെത്ര എസ്റ്റിമേറ്റെത്രെ വരും എത്ര രൂപ എത്ര രൂപ അതിനു വരും

ഇതിപ്പോള് വീട് ഒരമ്പത് സെന്റുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇനിയിപ്പോള് അതിനാത്തിൽ തന്നെ അത് കുഴപ്പമൊന്നുമില്ല ഇതിപ്പോള് നിങ്ങളിപ്പോള് എഴുവത്തഞ്ച് എഴുപത്തിയഞ്ചു ലക്ഷം എന്നു പറഞ്ഞോ ഒരേക്കറിലാണോ എന്നൊക്കെ അറിയണല്ലോ ആ അപ്പോഴേ എനിക്കൊരു എനിക്കൊരു കോളുണ്ട് നമുക്കു പിന്നെ സംസാരിക്കാം അപ്പോള് ഞാൻ എന്നാല് നമുക്ക് നാളെയോ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ വിളിച്ചേക്കാം ഏ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താൻസ് ഒക്കെ